എൻ്റെ പ്രദേശത്ത് ജലാശയംന്ന് പറയുമ്പോൾ ഉണ്ട് ഒരു നദിയുണ്ട് ഇരട്ടിപ്പുഴ എന്ന് പറയുന്ന ഒരു നദിയുണ്ട് അത് നന്നായി പരിപാലി നന്നായി പരിപാലിക്കപ്പെടുന്നുണ്ട് അവിടെ അങ്ങനെ വേസ്റ്റ് വേസ്റ്റുകൾ ഒന്നും കൊണ്ട് തള്ളുന്നില്ല അങ്ങനെ നല്ല നന്നായിട്ടു തന്നെയാണ് പരിപാലിക്കപ്പെടുന്നത് അതിൻ്റെ തീരത്ത് തന്നെ ഇപ്പോൾ ഇരട്ടി പുഴേൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടീട്ട് ഗ്രീൻ ലീഫ് എക്കോ പാർക്ക് ഒരു ഉദ്യാനം ഒരുക്കിയിട്ടുണ്ട് നല്ല വിജയകരമായിട്ട് സൗജന്യമായിട്ട് ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്നിരിക്കാനും പുഴയുടെയും ഈട്ടിയുടെയും ഭംഗി ആസ്വദിക്കാനും വേണ്ടിയിട്ട് ഒരു ഒരു എക്കോ പാർക്ക് ആണ് അത് വിനോദ സഞ്ചാരികൾ ഇല്ല എന്ന് ആദ്യമൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ കുറെ വർഷങ്ങൾക്കു മുൻപ് ഇരിട്ടി പുഴയിൽ ബോട്ടിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു മത്സ്യബന്ധനം നടത്തുന്നില്ല മത്സ്യബന്ധനം അങ്ങനെ നടത്തുന്നതായിട്ട് അറിയപ്പെട്ടിട്ടില്ല ബോട്ടിങ്ങിന് ഇപ്പോൾ അങ്ങനെ ഒരു ബോട്ടിങ്ങിൻ്റെ സംവിധാനം ഇപ്പോൾ ഇല്ല വെള്ളപ്പൊക്ക ഭീഷണി അനുഭവപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് എൻ്റെ നാട്ടിൽ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് അത് പഴശ്ശി ജലസംഭരണിയിൽ ഷട്ടർ തുറക്കാത്തതിൻ്റെ ഭാഗമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ടൗണുകളും ഇരിട്ടി പട്ടണം ഒക്കെ തന്നെ വെള്ളത്തിൽ മുങ്ങി ഭയങ്കര ഒരു ദുരിതം അനുഭവപ്പെട്ടിട്ടുണ്ട് അത് നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വെള്ളപ്പൊക്കമായിരുന്നു ആയിരുന്നു അത് ഇരിട്ടിയിലെ മിക്ക ഒട്ടുമിക്ക താഴത്തെ നിലയിലുള്ള എല്ലാ കടകളും വെള്ളത്തിനടിയിൽ മുങ്ങി അങ്ങനെ ഒരുപാട് ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പിന്നെ വ്യവസായികൾക്ക് എല്ലാം ഒരുപാട് നാശനഷ്ടങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു സമയത്ത് അങ്ങനെയുള്ള ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്